ഔട്ടർ പെയിൻറ്റിങ്ങിനോടക്കെ എനിക്ക് താൽപ്പര്യമുണ്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണതൊക്കെ വരക്കുന്ന കാണാനും അത് വ നല്ല രസമാണ് എനിക്കിഷ്ടം ഭയങ്കര താൽപ്പര്യമുള്ളൊരു വിഷയമാണത് പക്ഷേ എനിക്കത് ഇങ്ങനെ വരക്കാനുള്ളൊരു സ്കില്ലെനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അത്രക്കും വലിയ ഇതേ രീതിയിൽ വരക്കാനുള്ളരിതൊന്നും എനിക്കിതുവരെ ആയിട്ടില്ല ഞാൻ ഇപ്പം ചെറിയ രീതിയിലുള്ള പെയിൻറ്റിങ്ങെക്കെയുള്ള ബോട്ടിൽ ആർട്ട് പോലുള്ള ചെറിയ രീതിയിൽ വരയ്ക്കുന്ന ആ ഒരു രീതീലുള്ള പെയിൻറ്റിങ്ങെക്കെ എനിക്കിപ്പം അറിയത്തൊള്ളു അത് കുറച്ചൂടെ മെച്ചപ്പെടുത്തി ലൈവ് വരക്കുന്ന രീതീലക്കെ ആകാനായിട്ട് എനിക്കാഗ്രഹമുണ്ട് ഞാനതിന് ശ്രമിക്കാറുണ്ടെനിക്ക് ടൈം കിട്ടുമ്പോഴക്കെ അത് അങ്ങനെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് പിന്നിങ്ങനെ വരക്കുന്ന കാണുമ്പോഴൊക്കെ എനിക്ക് വരക്കുന്നത് കാണുമ്പം വളരെ സന്തോഷം തോന്നാറുണ്ട് അതുപോലെ ചെയ്യണം എന്നക്കെ ആഗ്രഹം തോന്നാറുണ്ട് അതിന് ഞാൻ മാക്സിമം ശ്രമിക്കും അത് ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ് അതിന് വേണ്ടി മാത്രം ചെയ്യാൻ വേണ്ടീട്ടാണെങ്കിൽ അയ് ആ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കാനാണെങ്കിൽ നമുക്ക് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളു പക്ഷേ എപ്പോഴും അതിന് വേണ്ടി തന്നെ ഈ ഒരു പെയിൻറ്റിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റാത്തത് കൊണ്ടും മറ്റും കുറെ പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ടുമാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത് അത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നല്ല പ്രയാസമുള്ള കാര്യം തന്നെയാണ് ഇതക്കെ ഇങ്ങനെ ചെയ്യുന്നവർക്ക് നല്ല ടാലെൻറ്റോള്ളത് കൊണ്ടാണ് അവർ അതിന് വേണ്ടി മറ്റവരുടേതൊരു ഹോബി ഒരു പാഷനായിട്ടെടുത്തിരിക്കുന്നത് കൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഞാനൊരു ജസ്റ്റ് ടൈം പാസ്സിന് വേണ്ടിട്ട് ബോട്ടിൽ ആർട്ടക്കെ ചെയ്യുമ്പോഴ്ത്തേക്ക് എനിക്കത്രേം റിസ്ക്കിൽ വരാൻ പറ്റിയെന്ന് വരത്തില്ല എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടങ്ങനക്കെ വരാൻ വേണ്ടീട്ട്